നമുക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി കൂടുതലും ഫ്രണ്ട്സാണ് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ അവരോടൊപ്പമുള്ള ആ ഒരു എൻജോയ്മെന്റും കാര്യങ്ങളും നമുക്ക് ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ വേറൊരു രീതി അത് രണ്ടും രണ്ട് വെറൈറ്റി തന്നെയാണ് നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നല്ല അടിച്ച് പൊളിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഫ്രീ മൈന്റില് പോയി വരാം ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ എന്താ പറയുക കൂടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മള് തന്നെ നോക്കണം അപ്പോൾ അതിൻ്റെ ടെൻഷൻ പിന്നങ്ങനത്തെ കാര്യങ്ങൾ ഫ്രണ്ട്സാകുമ്പോൾ നമുക്ക് ആരും ആർക്കും ടെൻഷനില്ല എല്ലാവരും ജോളി മൂഡായിരിക്കും ഫുള്ള് എഞ്ചോയ്മെന്റും കാര്യങ്ങളായിരിക്കും ആയിരിക്കും അതിൽ അപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും കഴിക്കാത്ത ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നല്ല എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ആൾക്കാര് കഴിക്കും രണ്ട് മൂന്ന് ആൾക്കാര് കഴിക്കില്ല അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഇപ്പോൾ കഴിക്കാത്ത ആൾക്കാരും കഴിക്കുന്ന ആൾക്കാരും രണ്ടും സൂപ്പറാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കഴിച്ച് കൊണ്ടിരിക്കും നമ്മള് കഴിക്കാണ്ടിരിക്കും അതൊന്നും വിഷയമേ അല്ല അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നല്ല വൈബും കാര്യങ്ങളുമാണ് പിന്നെ എവടേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം ഒരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാത്തിനും എല്ലാവരും ഒരുമിച്ചുണ്ടാകും അപ്പോൾ എന്തുകൊണ്ടും ഞാൻ പ്രീഫറ് ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാനാണ്